അതേ ഞാൻ പാലായിൽ നിന്നുമാണേ വിളിക്കുന്നതേ ഞാനൊരു ഏഴു മുപ്പതൊക്കെ ആയപ്പോഴേ അവിടെനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിളിച്ചത് ആ നിങ്ങൾ ഈ ഫുഡ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഫുഡ് ചൂടോടെ ആയിരിക്കും നിങ്ങൾ തരുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊരു ചെറിയ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടേ അപ്പം ഈ പോകുന്ന സമയത്ത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡിൻ്റെ ചൂട് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഈ ഫുഡ് ചൂടോടെ തന്നെ ഇരിക്കാൻ വേണ്ടി ഈ കണ്ടെയ്നർസിലോ അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ബാഗിലോ ആയിട്ട് ഈ ഫുഡൊന്ന് എനിക്ക് വേണമായിരുന്നു അതങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ അത് ഹെല്പ്ഫുൾ ആയിരുന്നു വേറെയൊന്നുമല്ല ഞാൻ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഫാദർ ഉണ്ട് മദർ ഉണ്ട് പിന്നെ അതുപോലെ പ്രായമായവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരേയും കൊണ്ട് പോകുമ്പോൾ അവർക്ക് ഈ ചൂടില്ലാത്ത ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം പ്രത്യേകിച്ച് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൂടോടെ തന്നെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ തരാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കണം അത് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി എന്ന് വെച്ചാൽ പോകുന്നതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുകയില്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് പാക്ക് ചെയ്ത് തരുമായിരുന്നെങ്കിൽ ഹെല്പ്ഫുൾ ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ ഈ ഡെലിവറി ഒരുപാട് താമസിക്കരുത് കാരണം എനിക്ക് അധികം താമസിക്കാതെ തന്നെ പോകേണ്ടതാണ് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തരാൻ പറ്റുവോ അത്രയും പെട്ടെന്ന് തന്നാൽ വളരെ ഹെല്പ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷനോ കാര്യങ്ങളോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ നം എൻ്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി വാട്ട്സാപ്പ് വഴി ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം പേയ്മെൻറ് നേരിട്ട് തന്നാൽ മതിയായിരിക്കുമല്ലോ ഓക്കേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അപ്പം ഈ പറഞ്ഞ കാര്യം എനിക്ക് നിങ്ങളൊന്നു ചെയ്ത് തരണം സോ താങ്ക്യു